തീർച്ചയായും മറ്റ് ഉത്തരവാദിത്തങ്ങളോടും താല്പര്യങ്ങളോടും ഒപ്പം എൻ്റെ കാര്യങ്ങൾ തീർച്ചയായും കൃത്യമായും കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് സാധിക്കാറുണ്ട് അതുപോലെ തന്നെ നെയ്ത്തും തുന്നൽനും സമയം കണ്ടെത്താനും പണിക്കിടയിൽ പ്രചോദനം നിലനിർത്തുവാനും എനിക്ക് വളരെ സഹായമായ കുറച്ച് വിദ്യകൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായൊരു സമയക്രമീകരണം ഉണ്ടാകും പിന്നെ അതിനായൊരു ലക്ഷ്യം നിശ്ചയം പ്രതിരോധശേഷി ബുദ്ധിമുട്ടുള്ള അവസ്ഥകൾ വരുമ്പോൾ എന്തെല്ലാം ഞാൻ ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് പ്രചോദനങ്ങൾ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ സഹായം എനിക്ക് ആവശ്യം വരികയാണെങ്കിൽ മാത്രം മറ്റുള്ളവരിൽ നിന്നും നേടുക പിന്നെ ഇടക്ക് ആത്മവിശ്വാസം വിശ്രമത്തിനായി ഒരു ചെറിയ സമയം ഞാൻ ഇതെല്ലാം കാത്ത് സൂക്ഷിക്കാറുണ്ട് ഇതുവഴി എനിക്ക് എൻ്റെ കാര്യങ്ങൾ കൃത്യമായി ക്രമീകരിക്കുവാനും അതെല്ലാം ഒരു മടിയും കൂടാണ്ട് ചെയ്യാനും എന്നെ സഹായിക്കാറുണ്ട് ഞാൻ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളൊരു പട്ടിക തയ്യാറാക്കുകയും മുൻഗണന നൽകും വ്യക്തമായ ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ച് അതിലേക്കുള്ള വഴികൾ തിരഞ്ഞ് എടുക്കാറുമുണ്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ കൈവിടാതെ ശ്രമിക്കാൻ ഞാൻ തയ്യാറാണ് അതിനാൽ ഞാൻ കൂടുതൽ പരിശ്രമിക്കുകയും വിശ്രമ വേളകൾ എടുക്കുകയും ചെയ്യാറുണ്ട് എനിക്ക് പ്രചോദനം നൽകുന്ന പുസ്തകങ്ങൾ ആളുകൾ അനുഭവങ്ങൾ എന്നിവയെ ഞാൻ പിന്തുടരുന്നു നേരത്തെയുള്ള തെറ്റുകളിൽ നിന്നും ഞാൻ പാഠങ്ങൾ പഠിക്കുന്നു അതുവഴി അത് വീണ്ടും വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുമുണ്ട് എനിക്ക് ആവശ്യമായി വന്നാൽ വീട്ടിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും സഹായങ്ങൾ ചെറുതായി തേടാറുണ്ട് അതുവഴി എനിക്ക് അവരുമായുള്ള ബന്ധം കൂട്ടുവാനും നല്ല രീതിയിൽ കൊണ്ടുപോകാനും സഹായിക്കും എനിക്ക് എൻ്റെ കഴിവുകളിലുള്ള വിശ്വാസം എല്ലാ സാഹചര്യങ്ങളിലും മുന്നോട്ട് നയിക്കുന്നു എനിക്ക് എന്നെ തന്നെ വിശ്വാസം ഉണ്ടാകുമ്പോൾ എൻ്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുവാൻ എനിക്ക് തോന്നും മനസ്സിന് ശാന്തി നൽകാൻ ചെറിയ ഇടവേളകളും ഞാൻ കൃത്യമായി എടുക്കാറുണ്ട് അതുവഴി എന്നെ കൂടുതൽ ഊർജയാക്കാൻ അത് സഹായിക്കും താല്പര്യങ്ങൾ ഉപേക്ഷിക്കാതെ അതിനൊപ്പം മറ്റു ഉത്തരവാദിത്വങ്ങളും ഞാൻ നടത്താറുണ്ട് വീട്ട് കാര്യങ്ങൾ പഠിത്ത കാര്യങ്ങൾ എല്ലാം കൃത്യമായി ഞാൻ ചെയ്യാറുണ്ട് ദൈദന്യ ശീലങ്ങൾ കൊണ്ട് സ്ഥിരം സ്ഥിരതയും ഒരു പ്രവർത്തിയുടെ ആവശ്യകതയും തിരിച്ചറിയുന്ന സംവിധാനത്തെയും ഞാൻ അഭ്യസിക്കുന്നു അതുവഴി എനിക്ക് കൂടുതൽ ഊർജതയോടെ വീണ്ടും മുന്നേറുവാൻ സഹായിക്കും എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി എനിക്ക് ചെയ്യാൻ ഇതെല്ലാം എന്നെ സഹായിക്കാറുണ്ട് ഒരു വ്യക്തി അയാളുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതുവഴി അവർക്ക് അവരിലൂടെ തന്നെ നല്ലൊരു നാളെയും നല്ലൊരു ഭാവിയും ഉണ്ടാക്കാൻ സാധിക്കും